ഹലോ ഹലോ

ആ

ഓ അതെയോ അ ആ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ ഫോണും കൊണ്ടൊന്ന് വന്നാല് നമുക്ക് നോക്കിനോക്കാം എന്താ പ്രശ്നം എന്ന് അ ഓ അച്ചാ അ ആ ഇവിടുന്ന് ഇവിടുന്ന് വാങ്ങിയ ഫോ ഫോണാണോ ഇവിടുന്ന് ഓ ഓ

അ ഗേ ഗ്യാരന്റി ഉണ്ടെങ്കിൽ അ ഗ്യാരന്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജ്ജ് നമ്മൾ മാറ്റിത്തരും ഗ്യാരന്റി ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി കാർഡും കൊണ്ട് നിങ്ങൾ വന്നാല് നമ്മൾ അത് മാറ്റിയിട്ട് പുതിയ ബാറ്ററി ഇട്ട് തരും ആ നിങ്ങൾ നിങ്ങൾ നമ്മുടെ കടയിലേക്ക് അല്ല നിങ്ങൾ നമ്മുടെ നിങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ ഫോണല്ലെ അപ്പോൾ കടയിലേക്ക് കൊണ്ട് വന്നാല് ആ നമ്മൾ തന്നെ അത് മാറ്റിത്തരും നിങ്ങൾക്ക് അത്രയും അല്ലെ ഉള്ളു വാങ്ങിയിട്ട് ആ അല്ലെ അല്ലെങ്കില് നിങ്ങൾ വാങ്ങിയ മൊബൈലിൻ്റെ അതേ ഇത് ഉണ്ടാകും അവിടെ ആ കടയിൽ പോയാല് അവര് നിങ്ങൾക്ക് മാറ്റിത്തരും പൈസയൊന്നും കൊടുക്കണ്ട അതിൻ്റെ കസ്റ്റമർ കെയറില്ലേ മൊബൈലിൻ്റെ ആ അവിടെ പോയാൽ അവർ മാറ്റി തരും അ അ അ ആയ് ആയ് ആയ് ആയ്